സാംസ്കാരികമായുള്ള ഭിന്നതകളെ ഒന്നിപ്പിക്കാൻ ഒന്നിപ്പിക്കാനും ആളുകളെ ഒരുമിപ്പിക്കാനും നൃത്തത്തിന് വളരെയധികം കഴിവുണ്ട് അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുന്നതോടൂകുടെ ആ ഡാൻസ് കളിക്കുന്നത് ഒര് പ്രത്യേക റീസൺ കൊണ്ടല്ല അങ്ങനെ കളി കളിക്കണം അങ്ങനുള്ള അങ്ങനെ എന്തെങ്കിലും ലോജിക്കായിട്ടുള്ള റീസണല്ല ജസ്റ്റ് ഇമോഷൻ ഡാൻസേർസ് ജസ്റ്റ് ഇമോഷൻ അത് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ സങ്കടം നമുക്കുള്ള എല്ലാ ഫിലിംഗ്സും നമുക്ക് കാണിക്കാനുള്ള ഒര് ഒരു പ്ലാറ്റ്ഫോമാണ് ഒര് ഒര് ഡാൻസ് കാണുന്നത് അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത് നമുക്ക് ഡാൻസ് കളിക്കുന്നതോട് കൂടെ എന്താ പറയുക നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമുക്കുള്ള നമ്മുടെ മനസ്സിലുള്ളതെന്താണോ നമ്മുടെ മനസ്സില് നമ്മളെന്താണോ അനുഭവിക്കുന്നത് നമുക്ക് ഡാൻസിലൂടെ പുറത്ത് കാണിക്കാൻ കഴിയുന്നതാണ് അതിപ്പോൾ ആൾക്കാരെ ഭിന്നിപ്പിക്കലല്ല ആൾക്കാരെ ഒന്നിപ്പിക്കലാണ് എന്നെച്ചഴിഞ്ഞാ അതിപ്പോ ഒര് ഡാൻസ് കാണുന്നതോട് കൂടി ഡാൻസ് കാണുമ്പോൾ ആ ഫീലിംഗ് ആ ആള് ആള് കളിക്കുന്നതെന്താണോ ആളുദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുവാണ് കാണുന്നവർക്ക് മനസ്സിലാവുകയാണ് അത് അപ്പോൾ ഒരു അതെ വേറെ എക്സാമ്പിളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒര് ഡാൻസ് എന്താ പറയുക വല്ല ക്രിക്കറ്റ് മാച്ചോ ഇങ്ങനെ ഫുട്ബാൾ മാച്ചോ ജയിക്കുവാണ് അല്ലെങ്കിൽ കല്ല്യാണ വീടുകളിൽ ഇവിടെയൊക്കെ നമ്മള് ജാതി മത ഭേദമില്ലാതെയാണെല്ലാവരും ഡാൻസ് കളിക്കുന്നതും സന്തോഷിക്കുന്നതും അവര് അവരുടെ സന്തോഷമാണ് ഡാൻസ് കളിക്കുന്നതോട് ഡാൻസിലൂടെ പ്രകടമാക്കുന്നത് ഓരോന്ന് ജയിക്കുമ്പോൾ എന്ന് വെച്ചാൽ ക്രിക്കറ്റ് മാച്ചില് ജയിക്കുമ്പോൾ അവരവരുടെ സന്തോഷമാണ് ഡാൻസ് കളിച്ച് കാണിക്കുന്നത് അവിടെ നമ്മള് ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല നമ്മുടെ സന്തോഷം സന്തോഷം മാത്രമാണവിടെ ബാക്കി ഇപ്പോൾ വല്ല തമിഴ്നാട്ടിലൊക്കെ എന്താ പറയുക മരിച്ചവരെ കൊണ്ട് പോകുമ്പോൾ ഡാൻസ് കളിച്ചിട്ടാണ് കൊണ്ട് പോകുക അതവരുടെ ദുഃഖമാണവിടെ പ്രകടമാവുന്നത് അവിടെയൊന്നും ഡാൻസിനെ അവിടെ ആളുകളെ ഭിന്നിപ്പിക്കല്ലല്ല അവിടെയൊന്നും അവിടൊക്കെ ആൾക്കാരെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പലതരം ഡാൻസ് റിയാലിറ്റി ഷോകളിൽ ഒര് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡാൻസ് പറയുമ്പോൾ എല്ലാവരുടെ എല്ലാ പല ടൈപ്പാൾക്കാരെ ഒന്നിപ്പിച്ചിട്ടാണ് ഡാൻസ് വരുന്നത് ഡാൻസ് കളിക്കുന്നട് ആൾക്കാരെ ഡാൻസിലൂടെ ഇമോഷനാണ് പുറത്ത് എല്ലാവരും കാണിക്കുന്നത് ആ ഇമോഷനിൽ ഇമോഷനിലൂടെയാണ് നമ്മള് പോകുന്നത് അവ അവ ആ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമോഷൻ ആ ഡാൻസറ് എന്താണോ അനുഭവിക്കുന്നത് അതാണ് നമ്മള് നമ്മൾക്കും ഫീല് ചെയ്യുക അതൊക്കെ എന്താ പറയുക ഒര് ഡാൻസറിൻ്റെ കഴിവാണ് ഡാൻസറ് ഇൻ ആ ഒര് ഡാൻസറ് ചിലപ്പോൾ സങ്കടത്തിലാണ് സങ്കടത്തിലാണാ ഡാൻസ് കളിക്കുന്നതെന്ന് കളിക്കുന്നതെങ്കിൽ നമക്കും ആ സങ്കടം നമുക്ക് ഫീൽ ചെയ്യും ആ ഡാൻസ് കളിക്കുമ്പോൾ എന്താണാവോ കുട്ടിക്ക് ഇന്നിത്ര സങ്കടം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും അതൊക്കെ എന്താ പറയുക ആ കഴിവാണ് നമ്മൾ എന്ന് വെച്ചാൽ ഡാൻസിനോടുള്ള അത്രയും പാഷനാണതില് കാണുന്നത് ഡാൻസിലൂടെ അവര് അത്രയും ഇമോഷണലി ഫുൾ അത്രയും ഇമോഷണലി അവര് ഡാൻസ് അത്രയും അവര് സ്നേഹിക്കുന്നു